ഞങ്ങളുടെ പ്രദേശത്ത് ഒരുപാട് കായിക ഇനങ്ങൾ കളിക്കാറുണ്ട് ക്രിക്കറ്റ് അതുപോലെത്തന്നെ വോളിബോള് ഇത് ഫുട്ബോള് അങ്ങനത്തെ കായിക ഇനങ്ങളൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെ കളിക്കുന്ന കളിക്കുന്നുണ്ട് അപ്പം സംസ ഇതിലാണെങ്കിൽ മാറ്റങ്ങളെന്ന് പറയാൻ എന്താ വ്യത്യാസങ്ങളൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ക്രിക്കറ്റിനോടാണ് താല്പര്യം കൂടൂതൽ അപ്പോൾ അവർ ക്രിക്കറ്റ് തന്നെ കളിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കളികൾ ക്രിക്കറ്റ് ഫുട്ബോള് അതുപോലെത്തന്നെ വോളിബോള് അങ്ങത്തെ കളികളൊക്കെ ഷട്ടില് അങ്ങനത്തെ കളികളൊക്കെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് കളിക്കുന്നുണ്ട്